ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അറുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട്